ഖാദി അതായത് ഖാ വി റെഡിമെയ്ഡ് വസ്ത്രങ്ങളും അതുപോലെ കൈകൊണ്ട് നിർമിച്ച വസ്ത്രങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് പലതും സിന്തറ്റിക് മെറ്റീരിയൽസ് അതായത് എന്താണ് ഇപ്പോൾ പറയുന്നത് സ് പോളിസ്റ്റർ പോലെയും അങ്ങനെയൊക്കെയുള്ള സിന്തറ്റിക്ക് മെറ്റീരിയൽസ് ഒക്കെയാണ് കൂടുതൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഇതെല്ലാമുണ്ട് എങ്കിൽ തന്നെ അതിൽ സിന്തറ്റിക്ക് മെറ്റീരിയൽസ് കൊണ്ടുള്ള തുണിത്തരങ്ങളും ഉണ്ട് അതുപോലെ അതേസമയം ഖാദി വസ്ത്രങ്ങൾ ഖാദി നല്ല കൈകൊണ്ട് നിർമ്മിച്ചെന്ന് പറയുമ്പം ഖാദി വസ്ത്രങ്ങൾ ഒക്കെ ആവുമ്പോൾ അത് കൂടുതലും കോട്ടൺ പട്ട് കമ്പിളി അങ്ങനെയൊക്കെ ഉള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂട് കാലാവസ്ഥ അങ്ങനത്തെ വേനൽ കാലത്തുമൊക്കെ നമുക്ക് എപ്പോഴും ഇടാൻ സുഖവും ശരീരത്തിന് കംഫോർട്ട് ആയിട്ടുള്ളതും എന്ന് പറയുന്നത് കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഖാദി വസ്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ഈ നമ്മുടെ കാലാവസ്ഥയിൽ ശരീരം വിയർക്കുന്നതൊക്കെ വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഇടാൻ ഇഷ്ടപ്പെടുന്നതും കോട്ടൺ കോട്ടൺ വസ്ത്രങ്ങളാണ് പണ്ടുള്ള കാലത്തും ആളുകളെല്ലാം അന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ അത് കൈ കൊണ്ട് നെയ്ത വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഒരു കാലത്ത് അതിനെല്ലാം കുറവ് വന്നു എങ്കിലും ഇപ്പം വീണ്ടും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ച് പോവുന്നുണ്ടെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ജനറേഷൻ ഈ ഖാദി വസ്ത്രങ്ങളൊക്കെ ഒരുപാട് ഇപ്പം വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് കാരണം അത് ഇപ്പം അവിടെ ഇവിടെ ഉള്ള ഷോപ്പുകൾ ഖാദി ഷോപ്പുകൾ കാണുമ്പം നമുക്കത് മനസ്സിലാകുന്നുണ്ട് കാരണം അതിന് ചിലവില്ല എങ്കിൽ അങ്ങനെ വീണ്ടും വീണ്ടും തൊട ഓരോരു ഇടത്ത് തൊ അത് തൊറ എന്താണ് പറയുക അത് തുടങ്ങില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പം അതിനൊക്കെ വീണ്ടും പ്രചാരം ഏറി വരുന്നുണ്ടെന്ന് അതായത് ഖാദി വസ്ത്രങ്ങൾ കോട്ടൺ വസ്ത്രങ്ങൾ കൈകൊണ്ട് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്കൊക്കെ പ്രചാരം കൂടി വരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ നെയ്തതും തുന്നിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് തോന്നുന്നത് കാലാവസ്ഥ തന്നെയാണ് നമുക്ക് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായ ച് വേനൽക്കാലത്തെ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് അസഹനീയമായ വിധത്തിലുള്ള ചൂടായിരുന്നു അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ കോട്ടൺ അല്ലാത്തൊരു വസ്ത്രം നമുക്കാ സമയത്ത് ഉപയോഗിക്കാൻ തോന്നില്ല ഉപയോഗിക്കാൻ പറ്റില്ല അത്ര മാതിരി ശരീരം വിയർക്കുകയാണ് അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഈ കോട്ടണിലേക്ക് ഖാദിയിലേക്ക് ഒക്കെ മടങ്ങി പോവുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും നെയ്തതും തുന്നിയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത്